ആ പറഞ്ഞോളൂ ആ ഓക്കെ ആ സീ ഫുഡ് കിട്ടുന്നത് നമുക്ക് ഇപ്പോൾ മെയിനായിട്ട് ആലപ്പുഴ ആ ഭാഗങ്ങളാണ് കൂടുതലായിട്ടും ബീച്ച് സൈഡിലാണ് നമ്മൾ കൂടുതലായിട്ടും ആക്കി കൊടുക്കുന്നത് അത് റെഡി ആക്കുന്നത് അപ്പോൾ നമുക്ക് സീ ഫുഡ് എല്ലാ തരത്തിലുള്ള സീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് അതായത് ആലപ്പുഴയിലുള്ള ബീച്ച് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഒക്കെ നല്ല രീതിയിലുള്ള സീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കരിമീൻ ഫ്രൈ ആണെങ്കിലും മത്തി ഉണ്ടാവും മത്തി വറുത്തത് അയല വറുത്തത് പിന്നെ ക്രാബ് അങ്ങനെ പല രീതിയിലുള്ള ചെമ്മീൻ ഉണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള ആ മീനുകൾ ഉണ്ട് മാഡത്തിന് ഇപ്പം ഏതാണ് വേണ്ടത് നാല് ദിവസത്തേക്കാണോ എ എല്ലാം കൂടിയിട്ട് അല്ലേ സീ ഫുഡിൽ ആണല്ലേ ഓ ആ ഉണ്ട് ഉണ്ട് ക്രാബ് ഉണ്ട് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പോൾ ഏകദേശം എല്ലാം ആ ആ ഓക്കെ ഓക്കെ ഇപ്പം നമുക്ക് ഇവിടെ വരുന്നത് പറഞ്ഞാൽ അതിൻ്റെ കൂടെ അതായത് അപ്പവും അതിൻ്റെ ക്രാബ് മസാല അങ്ങനത്തെ ഒരു ഇത് ഉണ്ട് ഒരു നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷ് ആണ് അത് അതൊക്കെ ആ ഇതൊക്കെ തന്നെ ആണ് നമുക്ക് ഇപ്പോൾ അപ്പം ആൻഡ് ക്രാബ് മസാല ഉണ്ടാവും പിന്നെ ചെമ്മീൻ മൊബിലിയെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഉണ്ട് അതും നല്ല അടിപൊളിയാണ് നല്ല എന്തായാലും നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ആണ് പിന്നെ ഫിംഗർ പ്രോൺസ് എന്ന് പറഞ്ഞിട്ട് പ്രോൺസിൻ്റെ ഇത് ഉണ്ടോ ആ അതും ഒക്കെ ഉണ്ട് അതും നല്ല ഇതാണ് പിന്നെ കരിമീൻ പൊള്ളിച്ചത് അതൊക്കെ നമ്മൾ ഇലയിൽ ഇട്ട് ചുട്ടിട്ട് കൊടുക്കുന്ന ഒന്ന് ആണ് കരിമീൻ പൊള്ളിച്ചത് ആ അപ്പോൾ അതൊക്കെ നല്ല രുചി മ് ആ ഓൾറെഡി ബുക്ക് ചെയ്യണം കാരണം നമുക്ക് ഇവിടെ അല്ല കുറേ പേർ വരുന്ന ആൾ ആൾ ഉണ്ടാവും നമ്മൾ പുറത്തുനിന്ന് ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പം ബുക്ക് ചെയ്യാണ്ടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം റൂം ഉണ്ടാവൂല്ല പിന്നെ ഫുഡും അതിന് അനുസരിച്ച് തികയില്ല അപ്പം നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പേർ ചെയ്യാൻ വേണ്ടി പറ്റും ആ ആ ഓക്കെ ഓക്കെ ഞാൻ ആ ആ ഞാൻ ബ്രോഷർ അയച്ചുതരാം വാട്ട്സ്ആപ്പിൽ ഞാൻ ഇട്ടുതരാം അപ്പോൾ അതിനനുസരിച്ച് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ നോട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി ഞാൻ അപ്പം ആ നിങ്ങൾ വരുന്ന ആ ഡേറ്റ് കൂടി ഇട്ടു ഇടുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പേർ ചെയ്ത് വയ്ക്കാം വേണ്ട വേണ്ട വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി

ആ വേണ്ട ശരി ഓക്കെ ഓക്കെ ഓക്കെ ഇടാം ഓക്കെ ആ ഓക്കെ മാഡം ഓ മ്